ഞാൻ എന്താണ് മീൻസ് സ്കൂളിലൊക്കെ തന്നെ സ്പോർട്സിനൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നതൊക്കെ ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസ് തന്നെ ആയിരുന്നു കൂടുതലും പിന്നെ റിലേ എന്നൊക്കെ പറഞ്ഞ ടീം മീൻസ് നാല് പേരുള്ള ഗ്രുപ്പായിട്ടുള്ള ഇത് തന്നെ ആയിരുന്നു റിലേ ആ സംഭവങ്ങളൊക്കെ അപ്പം അങ്ങനെ ഒരു ക്ലബ് മീൻസ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയിട്ട് ഞങ്ങൾ കൂടുതലും ഗ്രൂപ്പായിട്ട് എന്നായിരുന്നു എല്ലാ ആക്ടിവിറ്റീസും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ പ്രാക്റ്റീസ് ആണെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഗ്രൂപ്പായിട്ടുള്ളത് എന്താണ് ജോക്കിങ്ങും കാര്യങ്ങളുമൊക്കെ തന്നായിരുന്നു അപ്പോൾ ആ ഒരു ഇത് വച്ച് നോക്കുക ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ എനിക്ക് ആ ഒരു ഗ്രൂപ്പിങ്ങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കിട്ടിയിട്ടുള്ളൂ പിന്നേ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആഗ്രഹം ഉണ്ട് കാരണം നമ്മളുടെ മീൻസ് ഒരേ വേയ്വ്ലെങ്ത്ത് ഉള്ള ആൾക്കാരുടെ കൂടെ നമ്മളെ മീൻസ് ജോയിൻ ചെയ്യുക അങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആളാണ് ഞാൻ അപ്പം എന്താണ് ഗ്രൂപ്പിങ്ങുമായി നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും അത്പോലെ തന്നെ നമുക്ക് കുറേ കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കും ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഗ്രൂപ്പിങ്ങ് എന്ന് പറയുന്നത് എന്തുകൊണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ് അപ്പം ഒരു ഗ്രുപ്പിനൊപ്പം ഓടുകയോ എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ പിന്നെ മെയിനായിട്ടുള്ള സംഭവം പറയുക എന്നുണ്ടെങ്കിൽ ഒഫ് കോഴ്സ് മീൻസ് എന്താണ് പറയുക നമ്മളെ റിലേ ആ ഒരു സംഭവം അത് മെയിനായിട്ട് ഗ്രൂപ്പ് തന്നെയാണ് നാല് പേര് അടങ്ങുന്ന ഒരു അഞ്ചോളം ഗ്രൂപ്പ് തന്നെയായിരുന്നു അതും മീൻസ് ഓരോരുത്തർ ഓരോരുത്തർ ഓരോ റൗണ്ട് വച്ച് ഇങ്ങനെ ഇപ്പോൾ ഒരു ടീമിൽ തന്നെ ആണെങ്കിൽ നാല് ആൾക്കാർ ഉണ്ടാകും അങ്ങനെ വെവ്വേറെ ഗ്രൂപ്പായിട്ട് നാല് ആൾക്കാരെ വച്ച് ഒരു അഞ്ച് ഗ്രൂപ്പ് എങ്കിലും നാല് ആൾക്കാരെ വച്ച് വച്ച് ഉണ്ടാവും എന്നിട്ട് ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ ഓടി ഓടി ആ ഒരു പർട്ടിക്കുലർ

അത് വച്ച് നോക്കുക ആണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിങ്ങ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും വലുതായിട്ടുള്ള ഓർമ്മകളില്ല എനിക്ക് താല്പര്യം ഉണ്ട് അത്ര ഉള്ളൂ